പായസം അടപ്രഥമൻ പാലൊടപ്രഥമൻ സേമിയ പായസം പഴം പ്രഥമൻ ചക്ക പ്രഥമൻ പൊടിയരി പായസം കുങ്കുമപ്പൂ പായസം കൊണ്ടരി പായസം അച്ചപ്പം കുഴലപ്പം നെയ്യപ്പം ഉണ്ണിയപ്പം പാളരിപ്പഴം ചക്ക വറുത്തത് മധുരസേവ കണ്ണൂർ ലഡു അരിയുണ്ട കപ്പലണ്ടി മിഠായി